രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പതിനൊന്നായിരത്തി എഴുനൂറ്റി ഇരുപത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാൽപ്പത്തി മൂന്ന് ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുപ്പത്തി രണ്ട് നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഒന്ന്